ഗ്രാമത്തിന്റെ ഭംഗി വേറെ തന്നെയല്ലേ ഒരു ഒച്ചപാടോ ബഹളമോ ഒന്നൂമില്ല പരസ്പരം സ്നേഹിച്ചിട്ടും സഹായിച്ചും കഴിയുന്നവരാണ് ഇവിടെയുള്ളവർ ഇവിടുത്തെ കൃഷിയും നെല്പ്പാടമെല്ലാം വേറെ എവിടെയാണ് കിട്ടുക പച്ചക്കറിക്ക് ഒന്നിനും എവിടെയും പോകണ്ട ആവശ്യം ഇല്ല ഇവിടുത്തെ വീട്ടു വളപ്പില് തന്നെ എല്ലാം ഉണ്ടാകും തെയ്യമോ പെരുന്നാളോ ക്രിസ്തുമസ്സോ എല്ലാം ഒരുപോലെ നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം ഇവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അസീസിക്കാൻ്റെ കല്ലുമ്മക്കായയും എവിടെയും കിട്ടില്ല കാടും പുഴയും കുളവും തെയ്യവും എല്ലാമായിട്ട് നമ്മുടെ തന്നെ ഗ്രാമത്തിലെ പോലെ വേറെ എവിടെയാവൂല ഇവിടുത്തെ കല്യാണത്തെ പറ്റി തന്നെ പറയേണ്ടല്ലോ എല്ലാം കൊണ്ടും എനിക്ക് ഗ്രാമം വിട്ട് പോകാനെ മനസ്സില്ല അത്രയും നല്ല ഗ്രാമമല്ലേ നമുക്ക് ഇവിടെ എന്തെല്ലാം ഉള്ളത് ഇവിടുത്തെ പോലത്തെ ഒത്തൊരുമയോ മതസൗഹാർദം ഒന്നും വേറെ നഗരത്തിലെവിടെയും ഉണ്ടാകില്ല ഇവിടെ അത്രയും നല്ല സൗഹാര്ദത്തോടെ എല്ലാവരും പരസ്പരം സഹായിച്ച് സഹായിച്ച് കഴിയുന്നതാണ് ഇവിടുത്തെ ആശുപത്രി ആയിക്കോട്ടെ വണ്ടികളായിക്കോട്ടെ എല്ലാം വേറെ തന്നെയാണ് ഗ്രാമത്തിലെ പോലെ വേറെ എവിടെയും ആവില്ല ഒരു നഗ നഗരത്തിലും ഗ്രാമത്തിന്റെ ഇത് കിട്ടില്ല